ഹലോ ആ പറഞ്ഞോളൂ

അതെ അതേല്ലോ ആ തരാമല്ലോ

അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നാലര ചില്ലറ കിട്ടും അഞ്ച് തികച്ചു കിട്ടില്ല ഇല്ല അതിപ്പോള് അങ്ങനെയൊന്നും പറ്റത്തില്ല അഞ്ഞൂറു രൂപയ്ക്ക് അടിച്ചുകഴിഞ്ഞാല് അഞ്ച് ലിറ്റര് തികച്ചു കിട്ടത്തില്ലേട്ടാ

എന്താണെന്നുവച്ചാല് അടിപ്പിച്ചൊക്കെ കിട്ടും ആ അടിക്കാം അടിക്കാം ആ ആ ശരി ശരി ഓക്കെ ഓക്കെ

ആ ഇങ്ങോട്ട് വരാനുള്ള വഴിയന്ന് ആ ആ ഇപ്പോള് ചേട്ടന് ഏ ചേട്ടനിപ്പോള് എവിടെയാണു നില്ക്കുന്നത് ഇവിടുന്ന് എവിടെനിന്ന് എങ്ങോട്ടാണു പോകേണ്ടത് ആ ചേരി പള്ളിയുടെ അവിടുന്ന് നേരെ തുടിയം കോണം അവിടുന്ന് അമ്പൂരി വരിക അമ്പൂരി വന്ന് കഴിഞ്ഞുകഴിഞ്ഞിട്ട് നേരെ കൂട്ടപ്പു കുടപ്പനംമൂട് വെള്ളറട

തേക്കുപാറയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൂട്ടപ്പു ചെന്നിട്ട് അവിടെനിന്ന് ലെഫ്റ്റ് പോവുക അതായത് നേരെ പോവുന്ന കൂട്ടപ്പൂവില് നമ്മള് നേരെ ചെന്നു കയറുമ്പോള് കൂട്ടപ്പൂവില് ചെന്നുകഴിഞ്ഞ് നേരെ ലെഫ്റ്റ് ആറുകാണി ആ നേരെ പോവുന്നത് തേക്കുപാറ വലത്തോട്ട് പോകുന്നത് കൊടപ്പനംമൂട് വഴി വെള്ളറട നേരെ പോയാല് മതി അപ്പോള് കൂട്ടപ്പൂ അല്ല തേക്കുപാറയെത്തും ആ പോകും പോകും കൂടുതല് പോകും കൂടുതല് പോകാൻ പറ്റും പറ്റും പറ്റും പറ്റും പറ്റും മിച്ചവും കാണും രണ്ട് മൂന്ന് ലിറ്ററോളം മിച്ചവും കാണും ആ ഈ ഭാഗത്തു വേറെയില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെങ്കില്പ്പിന്നെ കാട്ടക്കടയിലൊക്കെ പോയാലുണ്ട്

ആ ആ ആ ആ ടൂറിസം കേന്ദ്രം ആ ടൂറിസം കേന്ദ്രങ്ങളോ ഇവിടുന്ന് ടൂറിസം കേന്ദ്രങ്ങളെന്നു പറയുമ്പോള് പ്രധാനമായിട്ട് നെയ്യാർ ഡാം ഒരു ടൂറിസം കേന്ദ്രമാണ് ആ അവിടെ പോയാല് ബോട്ടിങ് ഓക്കെ ഉണ്ട് പിന്നെ പിന്നെ അൽപ്പം കൂടി ട്രക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കില് ട്രക്കിങ് കിട്ടും ഉൾവനത്തില് ബോട്ടില് പോയിട്ട് അവിടെനിന്ന് ട്രക്കിങ്ങിനു പോവാം മീൻമുട്ടി വാട്ടർഫാള് ആ കൊമ്പയം എന്നു പറയുന്ന സ്ഥലത്തുചെന്നിട്ട് അവിടനിന്നൊരു അഞ്ചു കിലോമീറ്ററോളം ട്രക്ക ചെയ്ത് മീൻമുട്ടി വാട്ടർഫാളിലെത്താം ആ അവിടെ ഒന്ന് പോയിട്ട് തിരിച്ചുവരാൻ വഴി തിരിച്ച് വീണ്ടും പമ്പയില് വന്ന് അവിടുന്ന് ബോട്ടില് തിരിച്ചു വീണ്ടും നെയ്യാര് ഡാമിലെത്താം പിന്നെ അല്ലാതെയെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ മറ്റു സ്ഥലങ്ങളുണ്ട് കുമ്പിച്ചിലവിടെയൊക്കെ നല്ല സ്പോട്ടുകളാണ് വെള്ളത്തിലൊക്കെ കയറിപ്പോകാം അക്കരയിലൊക്കെ പോവാം ജലാശയങ്ങളും നല്ല മലനിരകളും ഒക്കെയാണ് ഇവിടെ ആ ശെരി ശരി ഓക്കെ ഓക്കെ ആ ആ അടിച്ചേക്കാം അടിച്ചേക്കാം അടിച്ചേക്കാം ഓക്കെ ഓക്കെ